എനിക്ക് എൻ്റെ നാട്ടിലും എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കണവരാണ് ഓരോ കായിക വിനോദങ്ങളിൽ ഇപ്പോൾ ഫുട്ബോളാണെങ്കിലും അതേപോലെ ഓട്ടം ആണെങ്കിൽ റണ്ണിങ് ആണെങ്കിലും അതേപോലെ എല്ലാത്തിലും ഓരോ കായിക വിനോദത്തിലും മറ്റേ പ്രാതിനിധ്യം തെളിയിച്ചവരാണ് അതുകൊണ്ടുതന്നെ അവർക്ക് അതിന്റ്റേതായ കഴിവുകളും ഉണ്ട് അവര് എന്താണ് ഈ പഠിച്ച കാര്യം ഇത് തൊഴിലാക്കിയവരും ഉണ്ട് മീൻസ് എന്താണ് വേറെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതേപോലെ അവരിൽ നിന്നും അതിൽനിന്നൊരു ജീവിതമാർഗം എന്നപോലെ ചെറിയ ഫീസൊക്കെ ആയിട്ട് ഒരു ജീവിതമാർഗം രാവിലെ കുറച്ച് ദിവസം രാവിലെ കുറച്ചു നേരം ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ റണ്ണിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പോർട്സായ ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്കതൊരു വരുമാനമാർഗം കൂടിയാണ് അവർക്ക് ആ രാവിലത്തെ കുറച്ച് നേരം ഒരു എമൗണ്ട് വരുമാനം നേടാനും കൂടി ഇത് കഴിയും സാധിക്കുന്നുണ്ട് അറിവ് പങ്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ നമുക്ക് അറിവ് നേടാനും ഇതിലൂടെ സാധിക്കും ഇത് തൊഴിലാക്കിയവരുണ്ട് അതേപോലെ സ്കൂളിലാണെങ്കിലും സ്പോർട്സിനു പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കൂടുതൽ പേരും ഫുട്ബോളിനും റണ്ണിങ്ങിലും ഒക്കെയാണ് കൂടുതലും പങ്കെടുക്കാറ് ക്രിക്കറ്റ് പോലുള്ള ഫെമിലിയറായിട്ടുള്ള എന്താണ് സ്പോർട്സിനങ്ങളിലാണ് എല്ലാവർക്ക് കൂടുതൽ വിദ്യാർത്ഥികളും പങ്കെടുക്കാറുള്ളത്